ഞങ്ങളുടെ പ്രദേശത്ത് നിന്നും ഉയർന്നുവന്ന ഒരു തനത് കലാരൂപമാണ് തിരുവാതിര പണ്ടുകാലങ്ങളിൾ വീടുകളിൽ ആയിരുന്ന വീട്ടമ്മമാർ എല്ലാവരും ഒരുമിച്ചു കൂടി അവർക്ക് സന്തോഷൂള്ള നിമിഷങ്ങളില് അല്ലെങ്കില് ഉത്സവങ്ങളില് അല്ലെങ്കില് ആഘോഷങ്ങളില് അവര് ഒരുമിച്ച് വട്ടം കൂടി നൃത്തം ചെയ്യുവാരുന്നു ഒരു വിളക്ക് നടക്കുവച്ചിട്ട് അങ്ങനെ പതിയെ പതിയെ പതിയെ അത് തിരുവാതിര എന്ന കലാരൂപത്തിലേക്ക് വരികയാണ് ചെയ്തത് പണ്ടത്തെ കോവിലകളങ്ങളിലും ക്ഷേത്രങ്ങളിലും അമ്പലങ്ങളിലുമൊക്കെ ആണ് ഈ തിരുവാതിര കൂടുതലും കളിച്ചിരുന്നത് അങ്ങനെ പതിയെ പതിയെ തിരുവാതിരയ്ക്ക് വളരെ പ്രാധാന്യം വന്നു പിന്നെ സ്കൂളുകളിലും യുവജനോത്സവങ്ങളിലും ഒക്കെ തിരുവാതിര ഒരു മത്സര ഇനമായിട്ട് മാറി അങ്ങനെ ഒരു ഒരു വളരെ പ്രത്യേകതയുള്ള ഞങ്ങളുടെ പ്രദേശത്തുനിന്ന് ഉയർന്നുവന്നൊരു ഒരു നല്ല കലാരൂപമാണ് തിരുവാതിര അതിന് സെറ്റ് സാരിയും മുണ്ടും പിന്നെ അഴിച്ചിട്ട മുടിയിലെ തുളസിക്കതിരും മുല്ലപ്പൂവും വച്ചിട്ടാണ് അവർ നൃത്തം ചെയ്യുന്നത് സ്ത്രീകളാണ് തിരുവാതിര കളിക്കുന്നത് പന്ത്രണ്ടു പേർ വരെ കാണും ഒരു തിരുവാതിരയ്ക്കകത്ത് അതവർക്ക് ഇഷ്ടമുള്ളത് പോലെയാണ് പിന്നേ തിരുവാതിരയ്ക്ക് കൂടുതലും ഓണത്തിന്റെ സമയത്തൊക്കെയാണ് തിരുവാതിര കൂടുതലും കളിക്കുന്നത് നാടൻ ശൈലിയിലുള്ള പാട്ടുകളാണ് പാടുന്നത് തിരുവാതിരയ്ക്ക് കേരളത്തിന്റെ പാരമ്പര്യവുമായിട്ട് ഒരുപാട് ബന്ധമുണ്ട്